ഇപ്പൊൽ ഞാൻ പോയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടർല അതായത് ഞാൻ ആഡംബരമായിട്ടുള്ള അതായത് ആഡംബരം മീൻസ് എൻ്റെ ഒരു മനസ്സില് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തില് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോയിട്ടുള്ള ഒരു ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർലയാണ് ബാംഗ്ലൂരിലെ വണ്ടർലായിൽ ആണ് പോയത് എനിക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടർലായിൽ കയറാൻ ഒക്കെ ഒരുപാട് പൈസ ആണെങ്കിലും എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഇതിലൊന്നും കയറാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് അതായത് വലിയ വലിയ റൈഡിനൊക്കെ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ സാധാരണ വെള്ളത്തിൽ അതായത് സ്വിമ്മിങ് പൂള് പോലെയുള്ള വെള്ളത്തിലെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും കാണാറ് അപ്പോൾ എൻ്റെ കൂടെ വന്ന കസിൻസ് കാര്യങ്ങളൊക്കെ അവര് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ് അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും അതിലൊക്കെ കയറി അതായത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കേറി അടിപൊളി ആക്കുമ്പോൾ എന്നെയും കൂടെ വലിച്ചു പിടിച്ച് കയറ്റും അപ്പോൾ ഞാൻ ശരിക്കും കണ്ണടച്ചാണ് ഇരിക്കുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പിന്നെ പിന്നെ ഇവരെ വെള്ളത്തിൽ കയറ്റി കയറ്റി കയറ്റി എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഡംബരം ആഡംബരം എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു യാത്ര